ആദ്യമായിട്ട് തേനീച്ചകടി ഏല്ക്കാതിരിക്കാൻ നോക്കുക ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഈ ഈ ഞങ്ങളൊക്കെ ചെയ്യുന്നയെന്നാന്ന് ചോദിച്ചാല് ഈ എന്തുവാ തുളസിയുടെ ഇലയുടെ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിക്കും നീര് പെരട്ടും പിന്നെ തേൻ പിന്നെ മഞ്ഞള് പെരട്ടും പിന്നെ വല്ലോം ഓയിലൊക്കെ ഉണ്ടെങ്കില് പിന്നെ അതും അതും അതും അതുചെയ്തിട്ടും കൊണമില്ലെങ്കിൽ ഇൻസെക്റ്റ് ബൈറ്റിനുള്ള ചില ആയുർവേദ മരുന്നുകളൊക്കെയുണ്ട് അതൊക്കെ ഉപയോഗിക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളതിനൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഞങ്ങള് വീടുകളിൽ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് മതി